എനിക്കെന്തുകൊണ്ടും വീഡിയോ കോളാണ് വോയിസ് കോളിനെക്കാള് താൽപര്യം കാരണം എന്താണെന്നുവെച്ചാല് വീഡിയോ കോളിലൂടെ നമുക്ക് ഒരാളോട് നമ്മള് നേരിട്ട് എങ്ങനെയാണ് മിണ്ടുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് മിണ്ടാനായിട്ട് സാധിക്കും പിന്നെ അവർക്ക് നമ്മുടെ മുഖഭാവങ്ങളും മറ്റ് മറ്റെല്ലാ കാര്യങ്ങളും നമുക്കെന്താണ് തോന്നുന്നത് അതൊക്കെ എല്ലാം നമുക്ക് അവർക്ക് കാണാൻ സാധിക്കും പിന്നെയാണെങ്കില് അത് ആ ഒരു കാരണം കൊണ്ട് നമ്മള് സംസാരിക്കുന്നതെല്ലാം വളരെ എനർജിയോടെ വളരെ അർത്ഥപൂർവ്വമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും പിന്നെ അതുമാത്രമല്ല പിന്നെയാണെങ്കില് നമുക്ക് വോയിസ് കോളിലൂടെ നമ്മൾ സംസാരിക്കുന്ന ആ ഒരു ടോണ് നമ്മള് ഉദ്ദേശിക്കുന്ന ആ ഒരു അർത്ഥം ചിലപ്പോള് സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് അതിന് പലതരം അർത്ഥങ്ങളുണ്ടാകും ആ ഒരു ടോണിനനുസരിച്ച് അത് നമുക്ക് വോയിസ് കോളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല പിന്നെ പക്ഷേ വീഡിയോ കോളിലൂടെ നമുക്ക് അയാളുടെ ശരീരഭാവങ്ങൾ പിന്നെ മുഖഭാവങ്ങൾ എല്ലാം നമുക്കങ്ങനെ കാണാനായിട്ട് സാധിക്കും അത് വളരെ നാച്ചുറലായിട്ട് നമുക്ക് അത് കണ്ടെടുക്കാനായിട്ട് നമുക്ക് പറ്റും പിന്നെ അതുകൊണ്ട് ഒരു ആ കാരണം കൊണ്ട് നമ്മള് സംസാരിക്കുന്നില്ല അതൊരു

അത് മാത്രമല്ല വീഡിയോ കോളിലൂടെ നമുക്കാണെങ്കിൽ ഒരാളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് എന്ത് റിലേഷൻഷിപ്പുമായിക്കോട്ടെ അത് നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് വളരെ ശക്തിപൂർവ്വമായിട്ട് ആക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ നമ്മള് ഒരാളുടെ മുഖം കാണുമ്പോള് നമുക്കയാളോട് വളരെ ക്ലോസ് ആയിട്ട് അങ്ങനെ ഒരു മനസ്സില് നമുക്കൊരു തോന്നലായിരിക്കും ഈ എന്തോ നമ്മള് കുറെ ദൂരം ദൂരത്താണെന്ന പോലെ നമ്മള് നമുക്കൊരു അടുത്തറിയാമെന്നുള്ള രീതിയിലായിട്ട് നമുക്ക് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും അതു മാത്രമല്ല പിന്നെയാണെങ്കില് എന്തെങ്കിലും വളരെ നമുക്കിപ്പോഴെന്താണ് ഇപ്പോള് എന്തെങ്കിലും കോംപ്ലെക്സ് ആയിട്ട് വളരെ വളരെ പാടായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കുക അല്ലെങ്കില് എന്തെങ്കിലും ഒരാളുടെ ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കില് നമുക്കീ ഒരു കാര്യത്തിന് മറ്റൊരാളുടെ ആവശ്യമുണ്ടെങ്കില് അത് വളരെ എളുപ്പമായി ഒരു വീഡിയോ കോളായിട്ട് നമുക്ക് എളുപ്പത്തില് മനസ്സിലാക്കാനായിട്ട് ഒരു വീഡിയോ കോള് കൊണ്ട് നമുക്ക് സാധിക്കാൻ പറ്റും പിന്നെ അത് മാത്രമല്ല അത് മാത്രമല്ല ഇപ്പോള് സംസാരത്തില് മാത്രമല്ല നമ്മുടെ മുഖത്തിൻ്റെ ആ ഒരു ഭാവം കൊണ്ടും ഒരു ചിരി കൊണ്ടാണെങ്കിലും അല്ലെങ്കില് ഒരു ഒരു കൈ കൊണ്ടെന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ പോലും അതൊക്കെയൊരു നമ്മള് ആ ഒരു സംസാരിക്കുന്ന ആ ഒരു ആളോട് അത് അത് എന്തൊക്കെയാണ് നമ്മള് ചെയ്യേണ്ടത് അതൊക്കെ വളരെ വളരെ ആവശ്യമാണ് അതില്ലാതെ നമുക്കൊരാളോട് അങ്ങനെയൊരു ബന്ധം നമുക്കത് പറ്റില്ല നമ്മള് ഒരാളോട് മിണ്ടുമ്പോള് നമ്മളെല്ലാവരും ഒരു ഒരു കണ്ടല്ലെ നമ്മള് സംസാരിക്കുന്നത് നമ്മള് നേരിട്ട് കണ്ടല്ലെ നമ്മള് നാച്ചുറലി സംസാരിക്കുന്നത് അപ്പോള് ആ ഒരു സെയിം സെയിം കോൺസെപ്റ്റ് തന്നെയാണ് വീഡിയോ കോളിനകത്ത് വരുന്നത് അപ്പോള് അതെല്ലാം ഒഴിവായിപ്പോകും പിന്നെ അത് മാത്രമല്ല അത് മാത്രമല്ല വീഡിയോ കോളിലൂടെ നമ്മളെല്ലാവരും കണക്റ്റ് ഒരാളോട് കണക്റ്റീവ് ആയിരിക്കുകയെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാലാണ് നമ്മള് ഫോണിലൂടെ സ്ക്രീൻ ടൈമൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്ക് പിടീയെന്നൊരു വീഡിയോ കോളിലൂടെ നമുക്ക് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും പിന്നെ അത് മാത്രമല്ല നമ്മുടെ മെന്റലി കൊണ്ടുപോലും ഒരു വീഡിയോ കോൾ ചെയ്യുന്നതാണ് വളരെ നല്ലത് അപ്പോള് ഈ കാരണങ്ങള് കൊണ്ട് വീഡിയോ കോൾ ആണ് എന്തുകൊണ്ടും വോയിസ് കോളിനെക്കാൾ ഭേദമെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നു